ഞാന് ഞങ്ങള്ക്ക് കോളേജിലൊരു ഓണത്തിൻ്റെ ഫങ്ക്ഷനുണ്ട് അപ്പോളതിന് പൂക്കൾ പൂക്കളുടെ ആവശ്യമുണ്ട് അപ്പോള് ഏതൊക്കെ തരത്തിലുള്ള പൂക്കളുണ്ടാകും ആണ് അതെ അന്ന് അന്ന് എടുക്കാനായിട്ട് ആ ഓക്കെ ഞങ്ങള്ക്ക് ഈ മഞ്ഞ അത് പല നിറത്തിലുള്ളത് ജമന്തി അങ്ങനെ കുറച്ച് മിക്സ് ചെയ്ത് ആ കുറച്ച് പലതരത്തിലായിട്ട് പലനിറത്തിലുള്ളത് കുറച്ച് കുറച്ചായിട്ട് അപ്പോള് കിലോയ്ക്ക് എങ്ങനെയാണ് എല്ലാത്തിനും വേറെ വേറെ വിലയാണോ അതോ ആ അത് കിലോയ്ക്ക് എത്ര രൂപ വരുമത് മുന്നൂറ്റിയമ്പത് രൂപ വരും ഇനി അഥവാ ഞങ്ങള്ക്ക് വെള്ള നിറത്തിലുള്ള അതായത് മുല്ല കുറച്ച് വേണം ജമന്തി കുറച്ച് വേണം അതുപോലെ പച്ച നിറത്തിലുള്ള കുറച്ച് ഇലകള് ആ അങ്ങനെ വേണമെന്നുണ്ടെങ്കില് അപ്പോള് സെപ്പറേറ്റ് സെപ്പറേറ്റ് അതിന് വേറെ കാശാകുമല്ലെ വെള്ളക്ക് അല്ലെ വെള്ള ഏതൊക്കെയാണ് വെള്ള മുല്ല മാത്രമാണോ അതോ വെള്ള വേറെയേതെങ്കിലും വേറെയേതെങ്കിലുമുണ്ടോ പൂ വെള്ളയല്ല അല്ലെ ഓക്കെ ഇത് മുൻകൂട്ടി ഓഡര് തരണമോ എത്ര വേണമെന്നുള്ളത് രണ്ട് ദിവസം മുമ്പ് ആ ഞങ്ങള്ക്ക് ഡെലിവറി തരാന് പറ്റുമോ എത്തിച്ചുതരാന് പറ്റുമോ അതിന് ചാർജസ് വേറെയുണ്ടോ ഓക്കെ ഞങ്ങള്ക്ക് കുറച്ചധികം വേണ്ടിവരും അപ്പോള് ഞാന് അങ്ങനെയാണെങ്കില് രണ്ട് ദിവസം മുമ്പ് അറിയിക്കാം ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ